ഇപ്പം നമ്മുടെ വയനാട്ടിൽ തന്നെ ഈ മൺചട്ടി മൺപാത്ര നിർമ്മാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് കാരണം ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് അനുയോജ്യമായ മണ്ണാണ് അപ്പം ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ മാ മൺപാത്ര നിർമാണം ഒക്കെ കുറവാണ് ഇപ്പം എല്ലാ അലൂമിനിയം പാത്രം ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൺപാത്ര നിർമാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ അറിയാത്ത ഒരവസ്ഥയാണ് പിന്നെ പണ്ടത്തെ ആൾക്കാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആദിവാസി സമൂഹത്തിൽ ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ടും മൺപാത്രങ്ങൾ നിർമിക്കുന്നത് അവർക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എങ്ങനെയാണ് ഒരു മൺപാത്രം നിർമിക്കുന്നത് എന്നൊക്കെ അപ്പം അവർക്ക് കുറച്ചുംകൂടെ ക്യാഷ് എല്ലാം കിട്ടുവാണെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ അത് കൊണ്ടുപോവും അപ്പം സർക്കാർ വായ്പ്പകളും സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് കൂടെ അവർ ബെറ്റർ ആയിട്ട് വരും വരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം കൂടുതലും സർക്കാരിന്റെ കൈയിലാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരണം അവർ കുറച്ചുംകൂടി ക്യാഷ് എല്ലാം ധനസഹായം ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവർ നല്ല രീതിയിൽ ആ ഒരു സംരഭം കൊണ്ട അടിപൊളിയാക്കിയിട്ട് കൊണ്ട് നടക്കും